സാമൂഹിക മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളുടെ വിശ്വാസ്യത എല്ലാ വാർത്തകൾക്കും തുല്യ പരിഗണന നാം കൊടുക്കാതെ ഇരിക്കുക കാരണം അതിൻ്റെ വിശ്വാസ്യത പലതിനും തീർത്തും ഇല്ലാത്തതാണ് ഓരോരുത്തരുടെയും അഭിരുചിക്ക് അനുസരിച്ചുള്ള വാർത്തകൾ ചമച്ചു വിടുന്നതും ആ ചമച്ച വാർത്തകൾ പ്രചരിപ്പിക്കുന്നതും അത് നമ്മളുടെ കൈകളിലെത്തിക്കഴിയുമ്പോൾ നമ്മൾ പ്രചരണത്തിനായി ഉപയോഗിക്കുന്നതും വളരെ തെറ്റായ രീതിയാണ് ആ തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്ന ചില വാർത്തകൾ നമ്മൾ പ്രചരിപ്പിക്കുന്നൂ എന്ന കാരണത്താൽ നമ്മളും നീതി ന്യായ വ്യവസ്ഥയ്ക്ക് കീഴിൽ ചോദ്യം ചെയ്യപ്പെടേണ്ടത് പെടുന്നതായ സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തികച്ചും ആവശ്യമെന്നും യാഥാർത്ഥ്യമെന്നും തോന്നുന്ന വാർത്തകൾ മാത്രമേ നമ്മൾ പ്രചരിപ്പിക്കാൻ പാടുള്ളു സാമൂഹിക വാർത്ത മാദ്ധ്യമങ്ങൾ ഇപ്പോൾ വളരെ ഏറെ പ്രാധാന്യം വഹിക്കുന്ന ഒന്നാണ് അത് പെട്ടെന്നുള്ള പല പല സംഭവങ്ങളും നിത്യേന ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായിക്കുന്നതിനോടൊപ്പം തെറ്റായ വാർത്തകളും എത്തിക്കാൻ ഉള്ള വഴിയായി തെരഞ്ഞെടുക്കപെടുന്നു സാമൂഹിക മാദ്ധ്യമങ്ങൾ വഴി ശരിയായി പ്രതികരിക്കേണ്ടവയേ തികച്ചും ന്യായമായ രീതിയിൽ പ്രതികരിക്കാൻ നമ്മൾക്ക് അവസരങ്കിട്ട്ന്നൂ എന്നുള്ളത് അത് ഒരു മേന്മയായി കാണേണ്ടതാണ് അതോടൊപ്പം തന്നെ തെറ്റായ രീതിയിലുള്ള വാർത്തകളെ നമ്മൾ വിവേചന ബുദ്ധിയാൽ തിരിച്ചറിയുവാനും അല്ലെങ്കിൽ അന്വേഷണ ബുദ്ധിയാൽ അവ അന്വേഷിച്ച് ശരി എന്ന് ശരിയാണോ എന്ന് ബോധ്യപ്പെടാനുള്ള ഉത്തരവാദിത്വവും നമ്മളിൽ തന്നെ നിഷിപ്ധമാണ് ഇപ്പോൾ സാമൂഹിക മാദ്ധ്യമങ്ങൾ ഉള്ളതിനാൽ രാജ്യത്തിൻ്റെ ഏത് ഭാഗത്ത് നടക്കുന്ന വാർത്തകളും സെക്കൻറ്റ്കൾക്ക് അകം നമ്മളിൽ എത്തിച്ചേരുന്നു അതുപോലെ തന്നെ സാമൂഹിക മാദ്ധ്യമങ്ങൾ വഴി പ്രകൃതിക്ഷോഭങ്ങളെയും പ്രകൃതി ദുരന്തങ്ങളെയും അപ്പപ്പം അറിയുവാൻ ഉള്ള സാഹചര്യം നമുക്ക് അതിൻ്റെ ഒരു മേന്മയായി കരുതാവുന്നതാണ് അതുപോലെ തന്നെ അനാരോഗ്യകരമായ പ്രവണതകൾ സമൂഹത്തിൽ വളരുന്നതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ അത് ന്യായമായും നമ്മൾ സ്വീകരിക്കാനും അതിന് എതിരേ പ്രതികരിക്കാനും സാമൂഹിക മാദ്ധ്യമങ്ങൾ ഉപയോഗിക്കാം എന്നുള്ളത് ഒരു നല്ല മേന്മയായി തന്നെ കാണുകയും അവയെ നമുക്ക് ഉപയോഗിക്കാവുന്നതുമാണ് ഇപ്പോൾ തന്നെ ലഹരിയെ കുറിച്ചുള്ള സാമൂഹിക മാദ്ധ്യമങ്ങൾ വഴി വരുന്ന വാർത്തകൾ വളരെ ഭീതിജനകം ആയിട്ടുള്ളതും അതിന് എതിരെ സമൂഹത്തിലെ പല മേഖലയിലുള്ള ആളുകൾ ശരിയായ രീതി രീതിയിൽ പ്രതികരിക്കുകയും അതിനായി ആളുകളെ സംഘടിപ്പിക്കുകയും സങ്കടിതമായ രീതിയിൽ ഇൽ ലഹരി വസ്തുക്കൾക്ക് എതിരെ പോരാടാനും പല പ്രദേശങ്ങളിലും ജനങ്ങൾ സന്നദ്ധമാവുന്നുണ്ട് അതുപോലെ തന്നെ ലഹരി യുടെ വ്യാപനം ഏത് രീതിയിൽ ഉണ്ടാകുന്നു എന്നതും ഏതൊക്കെ ലഹരി വസ്തുക്കൾ എന്തൊക്കെ അപകടങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും സമൂഹ്യ മാധ്യമങ്ങളിൽ അറിവുള്ളവരുടെ പ്രബന്ധങ്ങളും അവരോ പറാ അവരുടെ പരാമർശങ്ങൾ എല്ലാം നമ്മളിൽ അത് സംബന്ധമായിട്ടുള്ള വിവേകവും ജനിപ്പിക്കുന്നു നമ്മളുടെ കുട്ടികളെ അതിൽ നിന്ന് പിൻതിരിപ്പിക്കാൻ എന്തൊക്കെ മാർഗ്ഗങ്ങൾ സ്വീകരിക്കാം അല്ലെങ്കിൽ യുവാക്കൾ ഇതിൽ നിന്ന് വിമുക്തമാകാൻ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ പോകണം ഏതൊക്കെ സാഹചര്യങ്ങളാണ് അതിന് ഉതകുന്നതായിട്ട് ഉള്ളത് അതുപോലെ തന്നെ ലഹരി വസ്തുക്കളുടെ കൈകാര്യം ചെയ്ത്തിൽ വ്യാപനം ഇവ ഒക്കെ നമ്മൾ അറിയുക ആണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഉന്നതരായ ഉദ്യോഗസ്ഥരെ അറിയിക്കാനും അതിന് തടയിടുവാനും നമുക്ക് ആവുന്നു എന്നത് സാമൂഹിക മാദ്ധ്യമങ്ങളിൽ മാദ്ധ്യമങ്ങൾ നമ്മേ സഹായിക്കുന്നു എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ സാമൂഹിക സാമൂഹ്യ മാദ്ധ്യമങ്ങൾ ഇൽ പ്രചരിക്കുന്ന ഇക്കുന്ന തെറ്റായ പ്രവണതകൾ പലതുമുണ്ട് ആളുകൾ തെറ്റായ രീതി ഇലുള്ള മരുന്നുകളും അവയെ കുറിച്ചുള്ള വിവരണങ്ങൾ എല്ലാം ചെയ്ത് പലരും അപകട വിവരണകൾ കേട്ട് അതനുസരിച്ച് ചെയ്ത് ഡോക്ടറുടെ നിർദ്ദേശമോ അല്ലങ്കിൽ എക്സ്പീര്യൻസ്ഡായിട്ട് ഉള്ള ആളുകളുടെ നിർദ്ദേശങ്ങളോ ഇല്ലാതെ സൗന്ദര്യവൽക്കരണത്തിനും ശാരീരിക സൗന്ദര്യത്തിനും ഒക്കെ ആയ് ഇട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്യുക വഴി അപകടത്തിൽ പെട്ടതായിട്ടുള്ള ന്യൂസ്സ്കളും നമുക്ക് നിത്യേന കേൾക്കാവുന്നതാണ് അതുപോലെ തന്നെ ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി തെറ്റായ സന്ദേശങ്ങൾ നൽകി ആളുകളുടെ സമ്പത്ത് അടിച്ച് മാറ്റുന്ന ഒരു പ്രവണത ഇന്ന് സമൂഹത്തിൽ പലർക്കും ഉന്നത വിദ്യാസ്തര വിദ്യാഭ്യാസമുള്ള അഭ്യസ്ത വിദ്യരായയുടെ പോലും കബളിപ്പിക്കുന്ന രീതികൾ നാം കേട്ടും കണ്ടും അറിഞ്ഞിട്ടുള്ളതാണ് അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമം വഴി പ്രചരിപ്പിക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും സമൂഹത്തിൽ കുറെ ചാള്കളേ എങ്കിലും സ്വാധീനിക്കുക സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഉള്ളത് വസ്തുതയാണ് ഇത് എന്ന് എതിരായി പോരാടാൻ നമുക്ക് കഴിയും എങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിക്കുകയും പ്രചരിപ്പിക്ക്കേം ചെയ്യുന്നത് സമൂഹ നന്മയ്ക്ക് ഉതകുന്നതായിരിക്കും നമ്മുടെ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുവാൻ നല്ല രീതിയിലുള്ള പ്രചരണങ്ങൾ സമൂഹ മാദ്ധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത് നമ്മുടെ സമൂഹത്തിലെ ദുഷ്പ്രവണതകളെ തകളെ ഒഴിവാക്കാൻ സഹായിക്കും എന്നത് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ സാമൂഹിക മാദ്ധ്യമങ്ങൾ വഴി അറിവിൻ്റെ പുതിയ ലോകത്തേക്ക് പ്രവേശിക്കാനും ആരോഗ്യകരമായ അറിവുകൾ സ്വീകരിക്കാനും നമുക്ക് കഴിയട്ടേ എന്നാണ് സാമൂഹ്യ മാദ്ധ്യമങ്ങൾ ഉപയോഗിക്കുക വഴി നമുക്ക് പ്രാപ്തമാക്കേണ്ടത് ആയിട്ടുള്ളത്